കാർഷികാവശ്യത്തിന് വൈദ്യുതി അത്യാവശ്യമാണ് വൈദ്യുതി ഇല്ലാതെ കാര്ഷിക വിളകള്ക്ക് ഒരു കാര്യവും നടക്കില്ല കാര്ഷിക വിള മാത്രമല്ല എല്ലാ കാര്യങ്ങള്ക്കും വൈദ്യുതി അത്യാവശ്യമാണ് പ്രത്യേകിച്ചും കാർഷികരംഗത്ത് കാർഷികരംഗത്ത് വൈദ്യുതി ലഭിക്കുന്നതിന് പലപല നൂലാമാലകളുണ്ട് എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് കൃഷിഭവനിൽ കൃഷി കൃഷിഭവനിൽ ചെന്ന് കർഷകൻ്റെ യഥാർഥ അഡ്രസ്സും കാര്യങ്ങളും നല്കി അയാള് കൈവശം വെയ്ക്കുന്ന സ്ഥലത്തിൻ്റെയും കൃഷിയുടെയും മറ്റ് വിവരങ്ങള് ധരിപ്പിക്കുകയും അവർ അവർ തരുന്ന ഫോം ഫില് ചെയ്ത് കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യണം വൈദ്യുതി ഓഫീസിൽ നിന്ന് ആവശ്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് അവർ ചെയ്യേണ്ട അവർ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്ത് അത് പൂർത്തിയാക്കി കൃഷിഭവനിൽ ചെന്ന് കാണുകയും അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അത് കർഷകർ കര്ഷകര്ക്ക് വേണ്ട സഹായം കൃഷിഭവനിലൂടെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യ ചെയ്തതിന് ശേഷം അവിടുത്തെ കണ്ടീഷന് ഇലക്ട്രിസിറ്റിയിലത്തെ ഓഫീസിലെ കാര്യങ്ങള് അവര് അവിടുത്തെ സാധ്യത നിശ്ചയിച്ചതനുസരിച്ച് കര്ഷകര്ക്ക് വൈദ്യുതി ലഭിക്കുന്നതായിരിക്കും സാധാരണ സര്വീസ് കണക്ഷന് ആണെങ്കില് പെട്ടെന്ന് കൊടുക്കുകയും കൃഷിയിടത്തിലേക്കും അല്ലെങ്കില് വീട്ടിലോ വൈദ്യുതി വേണമെങ്കില് വൈദ്യുതി വൈദ്യുതി പോസ്റ്റ് ആവശ്യമാണെങ്കിൽ കൈയില് കുറച്ച് കാശ് ചിലവാകുന്ന അധികം ചിലവാകും പോസ്റ്റ് ആവശ്യമില്ലെങ്കില് പെട്ടെന്ന് കണക്ഷന് കൊടുക്കുന്നതാണ് പതിവ് കാര്ഷികരംഗത്ത് പോസ്റ്റ് ഇട്ട് വൈദ്യുതി എടുത്ത് വന് നഷ്ടമാണ് സംഭവിക്കാന് പോകുന്നത് അല്ലെങ്കില് തന്നെ വിളകള്ക്ക് വിലയില്ല പിന്നെ കര്ഷകര്ക്ക് കാര്യമായ മറ്റ് വരുമാനമാര്ഗങ്ങളുമില്ല ആ നിലയ്ക്ക് പുതിയ സൗജന്യകറന്റ്റിന് കറന്റ് ആണെങ്കിലും ഒരു പ്രത്യേക ഫോമും അത് നമ്മള് ആദ്യത്തെ കറണ്ട് ബില് അനുസരിച്ച് വേണം അവരത് തീരുമാനിക്കുന്നത് കറണ്ട് ലഭിച്ചുകഴിഞ്ഞാല് പിന്നെ കര്ഷക കര്ഷകര് തങ്ങളുടെ വൈദ്യുതി ബില്ലും വേണ്ട രേഖകളും വീണ്ടും കൃഷിഭവനില് നല്കുകയും അവിടുന്ന് അവിടെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞ ശേഷം അവര് വന്ന് കാര്യങ്ങള് നോക്കി അർഹരാണോ എന്ന് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് തരികയും തുടർന്ന് വൈദ്യുതി ലഭിക്കുകയും ചെയ്യുകയാണ് പതിവ് കാർഷിക ആവശ്യത്തിന് വൈദ്യുതി ലഭിച്ചു കഴിഞ്ഞാൽ അത് കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രമേ ആ വൈദ്യുതി ഉപയോഗിക്കാൻ പാടുള്ളൂ ചിലര് കാര്ഷിക ആവശ്യത്തിന് ലഭിച്ച വൈദ്യുതി വൈദ്യുതി മോട്ടറില് നിന്ന് വീട്ടാവശ്യങ്ങള്ക്കും മറ്റ് വ്യവസായ ആവശ്യങ്ങള്ക്കും കറണ്ടുകള് ഉപയോഗിക്കുന്നതായി കാണാറുണ്ട് അത് തീർത്തും തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല കാർഷിക ആവശ്യത്തിന് ലഭിച്ച കറണ്ട് കാർഷിക ആവശ്യത്തിന് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക പ്രത്യേകിച്ച് മഴക്കാല സമയ മഴക്കാലത്ത് കാര്ഷിക ആവശ്യത്തിനുമുള്ള കറണ്ടിന്റെ എന്നാല് ചിലര് ചിലര് ഇത് വീടുകളിലേക്കും മറ്റും വ്യവസായ ആവശ്യങ്ങള്ക്കും മറ്റാവശ്യങ്ങള്ക്കും ഉപയോഗിക്കുന്നതിനാല് അവര് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് അവരുടെ മീറ്റര് റീഡിങ് കാണാന് കഴിയുന്നു ശ്രദ്ധിക്കുമ്പോള് അത് ഇപ്പം കാണാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ആ ഇലക്ട്രിസിറ്റി ഓഫീസില് നിന്ന് വന്ന് അവര് അത് ഡിസ്കണക്ഷന് ചെയ്യ ചെയ്യാറുണ്ട് അതിന് ഒരിക്കലും ഇടവരുത്തരുത് അങ്ങനെ ഡിസ്കണക്ഷൻ ചെയ്തുകഴിഞ്ഞാൽ അവരുടെ താരിഫ് അനുസരിച്ച് അവർക്കത് നഷ്ടമുണ്ടാകുകയും അത് വീണ്ടും പഴയ സ്ഥിതിയിലാക്കുവാന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും വേണം അപ്പോള് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാതിരിക്കാന് കര്ഷകര് അവര്ക്ക് ലഭിച്ച വൈദ്യുതി വൈദ്യുതി അവര് കാര്ഷിക രംഗത്ത് മാത്രം ഉപയോഗിക്കുക മറ്റ് ആവശ്യങ്ങള്ക്ക് ഉപയോഗിക്കാതിരിക്കുക അതിൽ അതിലൂടെ പിന്നെ കാർഷികരംഗം പുരോഗമിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക വൈദ്യുതിബന്ധം കർഷക വൈദ്യുതി ചില ചില മറ്റ് പ്രശ്നമാണ് കർഷകർ നേരിടുന്നതെന്ന് വെച്ചാൽ അത് സബ്സിഡി നിരക്കിൽ കർഷകർക്ക് ലഭിക്കുന്ന വൈദ്യുതി അത് ഗവൺമെൻറ് അടക്കാത്തതിനാൽ ഭീമമായ തുക കർഷകർക്ക് ബില്ലിൻ്റെ രൂപത്തിൽ എത്തുകയും കര്ഷകര് ആകെ വിരണ്ടുപോയി നില്ക്കുന്ന ചില ചില സമയത്ത് അത് കര്ഷകര് തന്നെ അടയ്ക്കേണ്ടിയും വരുന്നുണ്ട് പക്ഷെ ചില സമയത്ത് അടയ്ക്കാതിരിക്കാന് പറ്റുന്ന അടയ്ക്കാതിരിക്കാന് കഴിയുന്ന അവസരത്തില് ചില കേസുകളില് വിച്ഛേദിക്കുന്ന വിച്ഛേദിക്കുന്നത് കൊണ്ട് അത് കര്ഷകര്ക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോള് കറണ്ട് കറണ്ടിന്റെ അമിതമായ കറണ്ട് വര്ദ്ധനവ് മൂലം വളരെ ബുദ്ധിമുട്ടിലാണ് മുമ്പത്തെ അവസ്ഥ അതിനാല് ഈ അതിന്റെ കൂടെ ഈ പ്രശ്നം കൂടി വന്ന് കഴിഞ്ഞാല് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ കറണ്ട് വിച്ഛേദിക്കുന്നതിന് വളരെ വിച്ഛേദിക്കുന്നതിൻ്റെ ഭാഗമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അത് പിന്നീട് അവർക്കത് പുനസ്ഥാപിക്കാൻ പല പേപ്പറുകളും ചെയ്തുകൊടുക്കേണ്ടി വരും അപ്പോൾ വിച്ഛേദിക്കാതിരിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കുക കറണ്ടിൻ്റെ അമിതവും അമിതമായ ഉപയോഗം പല കർഷകരും ചെയ്യുന്നുണ്ട് കാരണം വെറുതെ കിട്ടിയ കറണ്ട് അല്ലേ എന്ന് വിചാരിച്ച് വലിയ വലിയ പുഴകളിലും തോടുകളിലുമൊക്കെ ഇഷ്ടം പോലെ വെള്ളമുള്ളതിനാൽ അത് ഒരു വെറുതെ അടിച്ചു കയറ്റി ടാങ്കിലെത്തുകയും ടാങ്കിൽ നിന്ന് ധാരാളം വെള്ളം സ്പ്രിങ്ക്ളര് വഴിയും മറ്റും ചെയ്ത് ഒരുപാട് വെള്ളം ധൂർത്ത് ധൂർത്ത് ചെയ്യുന്നുണ്ട് വെള്ളമില്ലാത്ത പലസ്ഥലങ്ങളിലും അത് വൻ സ്ഥലങ്ങളിലേക്കും അത് എത്തിക്കുകയാണെങ്കില് ഒരു ഉപകാരപ്രദമാകും അപ്പോള് അങ്ങനെയുള്ള ആള്ക്കാര്ക്ക് ഇത് കാണുമ്പോള് ഭയങ്കര സങ്കടവും അങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന പല കര്ഷകരുമുണ്ട് വലിയ വലിയ പുഴകളിലെല്ലാം അഞ്ച് അഞ്ചിൻ്റെയും ആറിൻ്റെയും മോട്ടോറൊക്കെയിട്ട് ഒരുപാട് വെള്ളം ഇങ്ങനെ അടിച്ചു കയറ്റി വെറുതെ വെള്ളം കളയുന്ന പരിപാടിയുണ്ട് അതൊക്കെ വളരെ ദ്രോഹമാണ് ചെയ്യുന്നത് നാടിന് അപ്പോള് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം വെള്ളം ഉപയോഗിക്കുകയും ജലം എല്ലാവർക്കും അത്യാവശ്യമുള്ളതാണ് അത് മറ്റുളളവരതുമാണ് എന്ന ബോധം കർഷകർക്ക് ഉണ്ടാകണം അങ്ങനെയുള്ള ബോധത്തോട് കൂടി മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഒരു ഒരുപാട് വെള്ളം ഉപയോഗിച്ച് ഉപയോഗിച്ച് വെറുതെ കളഞ്ഞിട്ട് ഒരുകാര്യവുമില്ല വെള്ളം പോകുന്നത് മാത്രമല്ല ഒരുപാട് വൈദ്യുതിയും ഇതിനാവശ്യമാണ് ഈ വൈദ്യുതിയും കടത്തിലാണ് പോകുന്നത് അങ്ങനെ ജലസേചന കാര്യവും കടത്തിലാണ് പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചു കാര്യങ്ങളൊക്കെ കര്ഷകരും അറിയണം അതിനാല് പിന്നെ കര്ഷകരുടെ ഭാഗത്തു നിന്നും നല്ല ശ്രദ്ധ വേണം തങ്ങള്ക്ക് ലഭിച്ച വൈദ്യുതി അത് നല്ല രീതിയില് ഉപയോഗിക്കുകയും നല്ല വല്ല വിളവുകളുണ്ടാക്കുകയും അത് സമൂഹത്തിന് വലിയ കാര്യങ്ങള് ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത് അല്ലാതെ അത് കൂടുതല് ദുരുപയോഗം ചെയ്യരുത് വൈദ്യുതിബന്ധം ലഭിച്ച ഉടനെ തന്നെ പലര്ക്കും എങ്ങനെയാണിത് സൌജന്യമായി സൌജന്യമായി ലഭിക്കുക എന്നത് അറിയുന്നില്ല അതിന് വേണ്ടി കര്ഷകര് കൃഷിഭവനില് അന്വേഷിച്ചുകഴിഞ്ഞാല് അവിടുന്ന് വ്യക്തമായ കാര്യങ്ങള് പറഞ്ഞുതരികയും അതിനു വേണ്ട അതിന് മുന്പ് വേണ്ട കാര്യങ്ങള് പറഞ്ഞുതരികയും മാര്ഗനിര്ദ്ദേശങ്ങള് തരികയും ചെയ്യും എല്ലാ കർഷകരും യഥാർഥ കർഷകരാണെങ്കിൽ അവർക്ക് നല്ല രീതിയില് കൃഷി ചെയ്യുകയും കൃഷി ഭവനിലും ഇലക്ട്രിസിറ്റി ഓഫീസിലും പോയി കാര്യങ്ങള് കാര്യങ്ങള് ബോധ്യപ്പെടുത്തി സൌജന്യ കാര്ഷിക വൈദ്യുതി ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം ഒരുപാട് പ്രശ്നങ്ങള് കര്ഷകര് അഭിമുഖീകരിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് വൈദ്യുതി വൈദ്യുതിബില്ലും കൂടി വന്നുകഴിഞ്ഞാല് താങ്ങാന് പറ്റുകയില്ല അല്ലാതെ തന്നെ ഒരുപാട് വില കൂടിയിട്ടുണ്ട് കറണ്ട് ബില്ലിന് അപ്പോള് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള കര്ഷകര്ക്ക് താങ്ങാന് പറ്റാതെ കഴിയുന്നതും നല്ല രീതിയില് വെള്ളം ഉപയോഗിക്കുകയും അമിതമായി വൈദ്യുതി ഉപയോഗിക്കാതെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുകയും വേണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതവർക്ക് തന്നെ ഗുണം ലഭിക്കും അതിന് അത് അവർ അവർ തന്നെ മുൻകൈ എടുത്ത് ചെയ്യുകയും അതിന് വേണ്ട കാര്യങ്ങൾ അവർ തന്നെ നേടിയെടുക്കുകയാണ് വേണ്ടത് അത് അവർക്ക് വൻ നേട്ടമാവുകയും ചെയ്യും